ക്യാബ് ഏജൻസിയല്ലേ ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നേ ഡ്രൈവർ ഇതുവരേ എത്തിയിട്ടില്ല അപ്പം നമ്മള് കുറേ നേരമായി നമ്മള് വെയിറ്റ് ചെയ്യുന്നത് ആ അതെ അതെ അപ്പം നമ്മള് ടൈം കറക്ട് എട്ട് മണിയാണ് പറഞ്ഞത് നമുക്ക് എറണാകുളത്തേക്ക് പോകാനാണ് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാനാണ് അപ്പം നമുക്ക് അത് ടൈമിന് കറക്ട് ടൈമിന് അവിടേ എത്തണം അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഇതിപ്പം എട്ട് മണി എട്ടേ മുക്കാലായില്ലേ എട്ടേ മുക്കാലുവരേ വെയിറ്റ് ചെയ്തു ഇനിയിപ്പം നമുക്ക് ഒന്ന് അവര് അയാള് വിളിച്ച് പറഞ്ഞിട്ടില്ല ആ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നേരത്തേ ഞങ്ങള് വേറേ ഏതെങ്കിലും വണ്ടി കാര്യങ്ങള് ഓട്ടോയോ അങ്ങനേ എന്തെങ്കിലും നോക്കിയേനേ അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേറൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം അതുകൊണ്ട് നിങ്ങള് അതൊന്ന് അതായത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയാനായിരുന്നേ ഇനിയിപ്പം നമ്മള് വേറേ വണ്ടി വിളിച്ച് കഴിഞ്ഞ് പിന്നേ അയാള് ഇങ്ങോട് വരണ്ടേ അപ്പം ഞങ്ങള് വിളിച്ചിട്ടാണെങ്കില് അയാള് ഏടുക്കുന്നും ഇല്ല അപ്പം നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് ഇതാക്കണം കെട്ടോ അ അതെന്തായാലും ഞങ്ങള് ഇന്ന് ക്യാൻസലാക്കി ഇരിക്കുവാണ് ഓക്കേ ടാങ്ക് യൂ